ജൈവ കൃഷി വിജയകരമാക്കി മാറ്റാൻ നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ വേസ്റ്റുകളെല്ലാം നമ്മുടെ നമ്മൾ നമ്മളെ വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന കരിയില ആ ഇലകൾ തന്നെ അതു തന്നെ കൂട്ടിയിട്ട് കഴിഞ്ഞാലും നമുക്കൊരു ജൈവ കൃഷിയിലോട്ട് എത്തിക്കാൻ പറ്റും അതൊരു വളമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതു പോലെ നമ്മുടെ അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റിൽ നിന്നും ഉള്ളിത്തൊണ്ട് അതിലെ വെള്ളം ഓരോ പച്ചക്കറി അരിയുമ്പോൾ കിട്ടുന്ന വേസ്റ്റുകൾ അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു ആട് ഇവയിൽ നിന്നും കിട്ടുന്ന അവരുടെ പുല്ല് അവർക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്ന പുല്ലും അനുബന്ധ സാധനങ്ങളും വൈക്കോൽ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്കിതിനെയെല്ലാം ഒരു കമ്പ് ഒരു ഇതാ ഒരു അത് എല്ലാം വെച്ച് നമുക്കൊരു വളമാക്കി മാറ്റാൻ ആദ്യം പറ്റും നമ്മുടെ കൃഷിയിടങ്ങളിൽ നമുക്ക് നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന പ്രകൃതിയിൽ നമ്മളോരോ കൃഷി ഇറക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവ കൃഷി ജൈവ കൃഷി മുൻ നിർത്തി നിർത്തുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ജൈവ വളങ്ങളാണ് നമ്മൾ ജൈവ വളങ്ങളാണ് നമ്മളാദ്യം ഉപയോഗിക്കാൻ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഒരു നമ്മുടെ പറമ്പിൽ തന്നെ ഒരു കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കുക കമ്പോസ്റ്റ് കുഴിയിലോട്ട് നമ്മൾ കൊണ്ടു പോയിടുന്നതായി ഈ വേസ്റ്റിൽ നിന്നെല്ലാം ഓരോ കുറച്ച് ദിവസം മുപ്പത് ദിവസമോ നാൽപ്പത്തഞ്ച് ദിവസമോ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അതിനകത്തു നിന്ന് ഈ കമ്പോസ്റ്റ് കുഴിയിൽ നിന്ന് നമുക്കതിനെ വളമാക്കി എടുക്കാൻ പറ്റും ആ വളം നമ്മളെന്തു ചെയ്യണമെന്നു വെച്ചു കഴിഞ്ഞാൽ അതു കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ പശുവിൻ്റെ ആടിൽ നിന്നൊക്കെ കിട്ടുന്ന ചാണകപ്പൊടിയൊക്കെ ഉപയോഗിച്ച് നമ്മളാദ്യം പറമ്പെല്ലാം ആദ്യം നിലം നമ്മളാദ്യം എല്ലാം വൃത്തിയാക്കിയിടുന്നു പറമ്പ് നമ്മൾ വൃത്തിയാക്കി ഇട്ടതിനു ശേഷം നമ്മളെന്ത് കൃഷിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കൃഷിയിലേക്ക് നമ്മൾ ആദ്യം ഈ ഒരു ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു ജാതിത്തയ്യാണ് നടാൻ നമ്മളുദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഒരു കുഴിയെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഈ കമ്പോസ്റ്റ് കുഴിയും ഈ ചാണകവും എല്ലാം നമ്മൾ ചേർത്ത് കമ്പോസ്റ്റ് വളവുമെല്ലാം ചേർത്ത് നമ്മൾ ഇതിന് നമ്മൾ നടന്നു ആ നട്ടത്തിന് നല്ല ചകിരി തൊണ്ടും അങ്ങനെയുള്ള ചകിരി പൊടിയും അതെല്ലാം ചേർത്ത് നമ്മളിതിനെ നല്ല കരിയിലയൊക്കെ ഇട്ട് നമ്മളീ സംഭവം ഇതിനെ നടുന്നു നട്ടതിനു ശേഷം നമ്മൾ അതു പൊങ്ങി വരുന്ന അനുസരിച്ച് വെള്ളം ഒഴിക്കേണ്ട കാലാവസ്ഥയിലാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനെ വളർത്തി കൊണ്ടു വരിക അതിനെ വളർത്തി കൊണ്ട് വരുമ്പോൾ അതിനകത്തോട്ട് രാസവളങ്ങൾ ഉപയോഗിക്കാതെ നമ്മൾ ഈ ജൈവ വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എല്ലു പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഈ വേസ്റ്റുകളൊക്കെ ഉണക്കിപ്പൊടിച്ച് കോഴിയുടെയും അങ്ങനെയൊക്കെയുള്ളതിൻ്റെയൊക്കെ എല്ലും അവശിഷ്ടങ്ങളെല്ലാം കിട്ടുന്നതെല്ലാം കൂട്ടി യോജിപ്പിച്ച് അതു പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഈ മീനും മത്തിയുടെ തല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമുക്കിതിനെ ഒരു പൊടി രൂപത്തിലാക്കി എടുക്കാൻ പറ്റും അങ്ങനെയെല്ലാം ആക്കിയെടുത്ത് നമ്മളീ ജാതി ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്ത് ഇവരെ നമ്മുടെ വീട്ടിലുള്ള കോഴിയുടെ കോഴി കാഷ്ടം അങ്ങനെയൊക്കെ ഉള്ള ഓരോ സംഭവങ്ങൾ കുറേശ്ശേ കൂടുതലായിട്ടല്ല കുറേശ്ശേ കുറേശ്ശേ വെച്ച് നമ്മളതിനെ കൂട്ടി യോജിപ്പിച്ച് നമ്മളതിനെ ജാതിയുടെ ചുവട്ടിൽ എങ്ങനെ ആക്കുക അതിനെ പ്രകൃതിയിൽ പുല്ലും വൈക്കോലും കിട്ടുന്ന എല്ലാം നമ്മൾ ചെത്തിച്ചേർത്ത് ഉണക്ക് പിടിക്കാതെ നമ്മളതിനെ സംരക്ഷിക്കണം അതു പോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ വളർച്ചക്ക് അനുസരിച്ച് നമ്മൾ ജൈവ കൃഷി തന്നെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പറമ്പ് നമ്മുടെ ഭൂമിക്കു തന്നെ വംശനാശം വരാതെ വേരുകളും പുഴുക്കൾ പ്രാണികൾ ഇങ്ങനെയുള്ളതിനെയൊക്കെ തുരത്താൻ ഏറ്റവും പറ്റിയൊരു മാർഗ്ഗം തന്നെയാണിത് രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കൃഷി നമ്മൾ കൊണ്ടു വന്ന് നമ്മുടെ പറമ്പിൽ വെക്കുന്ന മറ്റൊരു പ്രത്യേ വെക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്ലാവിൻ തൈ നടാൻ പോലും നമുക്ക് രാസവളങ്ങൾ ചെല്ലുമ്പോൾ അത് നമ്മുടെ മണ്ണിനെ അത് ഭയങ്കരമായിട്ടും ബാധിക്കും അങ്ങനെ ബാധിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെന്തു സാധനം നട്ടാൽ പോലും നമ്മുടെ മണ്ണിലത് പിടിച്ചിട്ടുണ്ടാകില്ല അതിന് പകരമായിട്ടാണ് നമ്മൾ ജൈവ കൃഷിയിലാണെങ്കിൽ ജൈവമായിട്ട് ജൈവ വളങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കുന്നതാണെങ്കിൽ ആ മണ്ണിനെന്നും ഒരു മണ്ണിലെന്നും നമുക്കിതിനെയെല്ലാം നട്ട് വളർത്തി നല്ല രീതിയിൽ നമുക്ക് കൃഷി നടത്താനുള്ള ഒര അവസരം ഉണ്ടാകും അതു പോലെ കൃഷിയിടങ്ങളെ നമുക്ക് പരിപോഷിപ്പിച്ച് കൊണ്ടു വരാൻ പറ്റും അതു പോലെ തന്നെ ജൈവ കൃഷിയിൽ പെടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് ജൈവ കൃഷികളിൽ നിന്ന് കിട്ടുന്നത് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് രാസവളങ്ങൾ ചേർക്കാതെ നമ്മുടെ മണ്ണിനെ പരിപോഷിപ്പെടുത്തിയെടുത്ത് ഫലഭൂവിഷ്ടമാക്കിയെടുക്കാൻ നമ്മുടെ ഇതിനു പറ്റുന്ന ഒരു കാര്യമാണ് അതു പോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ തമ്മൾ ചെയ്യുമ്പോഴും ഓരോ ഇതിൽ നമ്മൾ ജൈവ വളങ്ങളിൽ ഒക്കെ ചെയ്തു വരുന്ന കായികനികൾക്കെല്ലാം ഒരു ഫലമുണ്ട് ആ ഫലം ഉണ്ടാകുന്നതിനെല്ലാം ഒരു ഗുണം ഉണ്ടാകും രാസവളങ്ങളെടുക്കുന്ന ഒരു നമ്മളിപ്പം ഒരു പറമ്പിൽ തന്നെ നമ്മളൊരു ജൈവവളം ഇട്ട് വളർത്തുന്ന ഒരു ഫലവും അതിനടുത്തു തന്നെ നമ്മൾ രാസവളം ഇട്ട് വളർത്തുന്ന ഒരു ഫലവും ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്കതിനകത്ത് നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഉദാഹരണത്തിന് നമ്മുടെ ഏത്തപ്പഴം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ഏത്തപ്പഴത്തിനകത്ത് പുളി രസം കൂടുതലായിരിക്കും മറ്റെ നമ്മൾ ജൈവ വളങ്ങൾ ഇട്ടുണ്ടായി വരുന്ന പഴങ്ങൾക്ക് അതിൻറ്റേതായ ആ ഗുണവും ആ രുചിയും എന്നും നില നിൽക്കും അത് സ്വാദിഷ്ടമായിരിക്കും അങ്ങനെ ഓരോരോ ഇതിൽ നമുക്ക് ഓരോന്ന് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ മണ്ണിനെ ഇതാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ മണ്ണിൽ നന്നായിട്ട് എല്ലാ കായ് കനികളും ലഭിക്കുന്നതിനും നമ്മുടെ മണ്ണ് നശിച്ച് പോകാതിരിക്കാനും പൂർവ്വികർ നമുക്ക് തന്നിരിക്കുന്ന ആ മണ്ണിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടു പോകാനും ഇനി വരും തലമുറകൾക്കു വേണ്ടിയിട്ടും നല്ല രീതിയിൽ നമ്മളിപ്പോൾ നട്ടു പിടിപ്പിക്കുന്ന രാസവളങ്ങൾ ഇട്ട് ഉപയോഗിച്ച് നടത്തുന്ന കൃഷിയിടങ്ങൾ ചിലപ്പോൾ എല്ലാ കാലവും നിലനിൽക്കണമെന്നില്ല എല്ലാ കാലവും നിലനിൽക്കാതെ നിന്നാൽ അതു നശിച്ചു പോകുക തന്നെ ചെയ്യും അതേ സമയം അധികം രാസവളങ്ങൾ ചെല്ലാതെ ജൈവ വളങ്ങൾ ഇട്ട് ലഭിക്കുന്ന ജൈവ വളങ്ങൾ ഇട്ടു കിട്ടുന്ന കൃഷിയിടങ്ങളാണെങ്കിൽ അവ കാലാകാലവും നീണ്ട് നിൽക്കും അതാണ് ഇന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം